വളരെ നല്ല സ്കൂൾ ബാഗാണ് അതിൻ്റെ സ്റ്റഡി ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ നന്നായിരുന്നു പിന്നെ നിങ്ങൾ ആപ്പീ കാണിച്ച സോഫ്റ്റ് വെയറിൽ കാണിച്ച ഡീറ്റൈൽസിനോട് നൂറുശതമാനം നീതി പുലർത്തിയിരുന്നു അതേ രീതിയിലൊക്കെ ഉള്ള സാധനമാണ് കിട്ടിയത് പിന്നെ പൈസ വാല്യൂ ഫോർ മണി വളരെ ലാഭമായിട്ട് തോന്നി ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുകൊടുക്കുന്നതായിരിക്കും പിന്നെ സാധാരണ സൈറ്റിലൊക്കെ കാണിക്കുന്നതിനും വ്യത്യസ്തമായ പ്രോഡക്ട് റിവ്യൂവും പ്രോഡക്റ്റ് ഡീറ്റൈൽസും അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യസ്തമായ സാധനാണ് കിട്ടുന്നത് പക്ഷേ ഈ സാധനം കൈ കിട്ടിയപ്പോൾ ആ പ്രോഡക്ട്സിനെ പറഞ്ഞ് ഇതുപോലെ തന്നെ ഉള്ള പ്രോഡക്റ്റാണ് കിട്ടിയത് പിന്നെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ് പിന്നെ സാധാരണ ഈ ആപ്പിലൂടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് സാധനവും റിഫർബിറ്റ് സാധനൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ക്വാളിറ്റി പുതിയ സാധനം തന്നെയാണ് കിട്ടിയത് ഫ്രഷ് ലുക്കും ഫ്രഷ് ആയിട്ടുള്ള സാധനവുമാണ് കിട്ടിയത് പിന്നെ ഇതിൻ്റെ വാറണ്ടി കാർഡും വാറണ്ടിയും എല്ലാം പറഞ്ഞതുപോലന്നെ പെട്ടെന്നന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റി പിന്നെ ഇത് വാങ്ങിച്ച ഉടനെ ഡെലിവറും ഡെലിവറി ചെയ്തതും പറഞ്ഞ സമയത്തുനുള്ളിൽ ഡെലിവർ ചെയ്തു എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു